ഹലോ ആ പറ അതെയതെ പറഞ്ഞോളു ഓക്കേ എന്നാണ് എ എന്നാണ് എന്നാണ് ഫംഗ്ഷൻ എന്നാണ് ഫംഗ്ഷൻ ആ രജിസ്ട്രേഷൻ നമുക്കിപ്പം നിലവിൽ ഇവിടെ ഒ ഉള്ള റേറ്റനുസരിച്ച് ചെയ്യാം പതിനഞ്ചാം തിയതി പതിനഞ്ച് പതിനഞ്ചാം തിയതി ഏതു ദിവസമാണ് വരുന്നത് വ്യാഴാഴ്ച ആ വ്യാഴാഴ്ചയാണ് സമയം എത്ര സമയം ഉദ്ദേശിക്കുന്നത് എത്ര മണിക്കാണ് ഫംഗ്ഷൻ ഓക്കേ അപ്പം ഞാനവിടെ എത്ര മണിക്കെത്തണം ആ വീട്ടിനെടുക്കണം പിന്നെ പള്ളീന്നെടുക്കണം പിന്നെ ആ ഫംഗ്ഷനുണ്ടല്ലേ ആ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസെടുക്കണവല്ലേ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോയി ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ടോ അല്ല ഹാളിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ടോ എടുക്കണ്ട ആ അങ്ങനെയാണ് ആ അതിന് പിന്നെ ഇതിന് ആൽബം ചെയ്യണോ അതോ സീ ഡീലാണോ വേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു റേയ്റ്റാകും സീ ഡി മതിയെങ്കിൽ അതിനു വേറൊരു റേറ്റാണ് ഇതിൽ ഫോട്ടോ മാത്രം മതിയോ അതോ വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ടോ വീഡിയോയും വേണം അപ്പോൾ വീഡിയോ സീ ഡിലാക്കി ഫോട്ടോസെടുക്കുന്നത് ആൽബം ചെയ്യാൻ താല്പര്യമുണ്ടോ അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പം വീഡിയോയും സ്റ്റിൽ ഫോട്ടോസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിധം എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ലാത്ത റേയ്റ്റിൽ ചെയ്ത തരാം ആ ഞാൻ ഞാൻ അവിടെ ഓഫീസിൽ പോയിട്ട് ഇതൊന്നു ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റേയ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ചേച്ചിയെ വിളിച്ചു പറയാം ശരി ശരി ഓക്കേ ശരിയെന്നാൽ